ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ഭയങ്കര വാർത്താപ്രാധാന്യം അതായത് അവർ പിന്നെ സോഷ്യൽ ഫിഗർ ആണ് അത് സമൂഹത്തിലെത്തുമ്പം അവരെ ഇപ്പം നമ്മളൊരു നമ്മളിപ്പം ഒരു വ വലിയൊരു ക്രൗഡി കൂടെ നടന്ന് പോയാൽ ഒരു മനുഷ്യരും നോക്കില്ല ആ സമയത്ത് മമ്മൂട്ടിയോ മോഹൻലാലോ പ്രിത്വിരാജോ ഉണ്ണി മുകുന്ദനോ നടന്ന് പോയാൽ എല്ലാവരും ശ്രദ്ധിക്കും കാരണം അവരെയെല്ലാവരും കാണുന്നതാണ് ഒത്തിരി ആരാധകരുള്ളതാണ് അങ്ങനെ ഉള്ളവർക്ക് പിന്നെ ഉള്ളതുകൊണ്ടുത്തന്നെ എല്ലാവരും ശ്രദ്ധിക്കാൻ ഇടവരുന്നുണ്ട് അപ്പോൾ ഈ അവർ പിന്നെ ചിലപ്പം അവരൊരു നല്ലകാര്യം ചെയ്താലും അവരിപ്പം ഒരാളെ മോശമായി പെരുമാറിയാലോക്കെ അത് വലിയ വലിയ ന്യൂസുകളാവാറുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ കാരണം എല്ലാവരുടെയും കയ്യിലും ഫോൺ ഉണ്ട് അപ്പപ്പം വീഡിയോ എടുക്കുന്നുണ്ടാവും അപ്പം അതൊക്കെ അപ്പം തന്നെ എഫ് ബി ഇൻസ്റ്റാഗ്രാം അതൊക്കെ വഴി വൻ പ്രചരണത്തിലെത്തുന്നുണ്ട് അതേപോലെ യൂട്യൂബ് നമ്മൾ ടീ വി തുറക്കേണ്ട ആവശ്യം വരുന്നില്ല ഫോണിൽ കൂടെ അപ്പപ്പം ന്യൂസുകൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ളത് അപ്പം അത് നമ്മൾ ശരിക്കും അങ്ങനെയൊന്നും കരുതണ്ട അവർ സാധാരണ മനുഷ്യരാണ് അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും എന്ന് പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞാലും അവർക്ക് നടക്കാൻ പറ്റില്ല കാരണം ഒത്തിരി തീവ്രമായ ആരാധന മോഹവും ആരാധന ആരാധിക്കപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ അവരുടെ മുൻപിൽ ചെല്ലുമ്പം അവരെന്താണ് ചെയ്യുക ആ ഒരു സന്തോഷം അവരെ ചിലപ്പം ചില ആൾക്കാർക്ക് അവരൊരു ദൈവത്തെ പോലെയൊക്കെയായിരിക്കും അവർ നടൻ നടന്മാരേം നടിമാരേയൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില വ്യാജവാർത്തകളും അവർക്കെതിരെ ഉണ്ടാവാൻ ചിലപ്പം സത്യസന്ധം ആയിരിക്കാം ചിലപ്പം വ്യാജം ആയിരിക്കാം അത് വേ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല വ്യാജമാണോ സത്യസന്ധമാണോ പക്ഷേ വാർത്താപ്രാധാന്യം നൽകാറുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പിന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ അല്ലേൽ വാർത്ത ചാനലുകളിലൂടെ വരുമ്പം വാർത്താപ്രാധാന്യം നൽകാറുണ്ട് കാരണം എല്ലാരിലേക്കും പെട്ടെന്ന് പെട്ടെന്ന് അത് എത്താൻ വഴിയുണ്ട്